ഇൻഷുറൻസ് പരീക്ഷയിൽ ഞാൻ സംതൃപ്തരാണ് ഇപ്പോൾ നോക്കാന്ന് വെച്ചാൽ ഇവിടുത്തെ ആ പ്രദേശത്തുള്ള ആശുപത്രികളിലൊക്കെ നോക്കാന്ന് വെച്ചാൽ ഇൻഷുറൻസ് നടപടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങ നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളിൽ പറയുന്ന ചില ഗവൺമെന്റുകൾ പറയുന്ന ചില പ്രൈവറ്റ് ആശുപത്രികളിലും ചില ആശുപത്രികളിലൊക്കെ ഇൻഷുറൻസ് വെച്ച് നമുക്ക് എന്തെങ്കിലും മറ്റും പൈ മറ്റും പൈസയും മറ്റും നമുക്ക് ലഭിക്കാറുണ്ട് അപ്പം അങ്ങനെ ക്ലൈമ് ലഭിക്കാൻ കുറച്ച് താമസം എന്ന് പറഞ്ഞാൽ മറ്റു ഡോക്യുമെന്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാണ് വെച്ചാൽ അത് കിട്ടാൻ കുഴപ്പമില്ല കുറച്ച് ലളിതം തന്നെയാണ് അങ്ങനെ ധനപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒക്കെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതിന് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ ക്ലെയിമും കിട്ടാറുണ്ട്